എൻ്റെ ജീവിതത്തിൽ ദിനചര്യകളെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് അത് ശീലമുള്ള വായിച്ചാൽ മാത്രമേ അത് കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളു അപ്പോൾ ശീലങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് വായന ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ എഴുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അറിവ് പുരോഗതി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ എഴുത്ത് നമ്മുടെ ജീവിത ശീലമാക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് അറിവ് നേടാനേക്കൊണ്ട് കഴിയും എഴുത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മുടെ അച്ചടക്കമാണ് നമ്മൾ നമ്മുടെ സമ്മിശ്ര വികാരങ്ങളോടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ പ്രസന്ധികളിലൂടെ ഒക്കെ നമ്മുടെ ജീവിതം കടന്ന് പോകുമ്പോൾ നമുക്ക് എഴുത്തിനെ അത് ബാധിക്കും എഴുത്തിൽ അച്ചടക്കമെന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് എഴുതുമ്പോൾ അച്ചടക്കം പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് പ്രശ്നങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ നമുക്ക് എഴുതാനേകൊണ്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ അല്ലാതെ അവസരങ്ങൾ വരുമ്പോൾ പരമാവധി അച്ചടക്കം പാലിച്ചു കൊണ്ടാണ് ഞാൻ എഴുതുന്നത് ദിനചര്യകളിലൂടെ പോകുകയാണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ ദിനചര്യയെന്ന് പറഞ്ഞാൽ നടക്കും നമ്മുടെ ചുറ്റും വീടിൻ്റെ ചുറ്റും നടക്കുക അത് നമുക്ക് ഏറ്റവും വലിയ ഒരു ഉന്മേഷമാണ് നമ്മൾ ഈ ദിനചര്യകളിലൂടെ കടന്ന് പോയാൽ മാത്രമേ ഒരു ദിവസം പൂർത്തീകരിക്കുകയുള്ളു നമ്മുടെ ആരോഗ്യവും ആയുസ്സിനും നമ്മുടെ ദിനചര്യകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എഴുത്ത് നമ്മൾ ഒരിടത്ത് ഇരുന്ന് എഴുതുകയാണെങ്കിൽ ദിനചര്യ എന്ന് പറയാൻ ദിനചര്യകളിലൂടെ നമ്മൾ കടന്ന് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ഒത്തിരി മെച്ചപ്പെടുത്തും നമ്മൾ ഒരു ദിവസം പല പല കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കാണുകയും നമ്മൾ അതിനകത്ത് ഭാഗവത്താവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ എഴുതുമ്പോൾ എഴുത്തിൽ ഏർപ്പെടുമ്പോൾ അതെല്ലാം മാറ്റി വെക്കുക നമ്മുടെ കൺമുൻപിൽ കണ്ടകാര്യങ്ങൾ നമുക്ക് യാത്രാവിവരണമായിട്ടോ അല്ലെങ്കിൽ അന്നന്നുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിത കാര്യങ്ങളായിട്ട് നമുക്ക് എഴുതാനേക്കൊണ്ട് കഴിയും ഒരോരുത്തരുടെ ജീവചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ദിനചര്യകൾ തന്നെ അവരുടെ എഴുത്തുകളിൽ നമുക്ക് കാണാനേകൊണ്ട് കഴിയും നമ്മൾ ഒരു ദിവസം ധാരാളം കാര്യങ്ങളിലൂടെ കടന്ന് പോകുന്നുണ്ട് അതെല്ലാം നമുക്ക് ഓരോ ദിവസവും ഒരു ബുക്കിൻ്റെ രണ്ട് പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ അത് നമ്മളെ ഒരു ദിനചര്യയാണ് ആ എഴുത്തിലൂടെ നമുക്ക് പിന്നീട് എടുത്തും മറിച്ചും നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാനേകൊണ്ട് കഴിയും അത്കൊണ്ട് ഞാൻ പരമാവധി എഴുതുമ്പോൾ അച്ചടക്കം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിലുള്ള സമയത്തായിരിക്കും ഞാൻ എഴുതുന്നത് പരമാവധി അച്ചടക്കം പാലിച്ച് എഴുതാനേകൊണ്ട് ഞാൻ സാധിക്കും നോക്കും എഴുത്ത് നമ്മുടെ ദിനചര്യകളിൽ ഉൾപ്പെടേണ്ട ഉൾപ്പെടേണ്ട ഒരു കാര്യമാണ് ശീലമായില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ടതാണ് നമ്മൾ അച്ചടക്കം പാലിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ മറ്റുള്ള ആൾക്കാരിലൂടെ അച്ചടക്കം നിലനിർത്താൻ കഴിയുകയുള്ളു നമ്മൾ കാണിച്ച് കൊടുക്കുന്ന മാതൃകയാണ് മറ്റുള്ളവർ ആ നമുക്കും കാണിച്ച് തരുന്നത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെ നമുക്ക് കാണിച്ച് തരുന്നത് നമ്മുടെ മാതൃകയാണ് അപ്പോൾ അച്ചടക്കത്തിലൂടെ ഒരു കുട്ടിയെ മുൻപോട്ട് കൊണ്ടു വരാനേകൊണ്ട് നമുക്ക് കഴിയും അപ്പം നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ വരും തലമുറയുടെ ജീവിതത്തിലായിക്കോട്ടെ എഴുത്തിലൂടെ അച്ചടക്കം പാലിക്കാനേകൊണ്ട് നമുക്ക് കഴിയുന്നതായിരിക്കും അപ്പോൾ എനിക്ക് എഴുത്തിലൂടെ അച്ചടക്കം പാലിക്കാനേകൊണ്ട് കഴിയുന്നുണ്ട് അതിന് ഞാൻ ശ്രമിക്കുകയും ചെയ്യും